ആ ഹലോ ട്രാവൽ ഏജൻസി അല്ലേ ആ ഞാൻ ഇവിടെ മലപ്പുറത്ത് നിന്ന് വിളിക്കുന്നതായിരുന്നു ആ എനിക്ക് ഇപ്പോൾ വയനാട്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണ് അവിടുത്തെ

ആണോ ആ എനിക്ക് ഒരു ഒരു മൂന്ന് നാല് ദിവസത്തെ ഒരു പാക്കേജ് ആയിരുന്നു വേണ്ടത്

അല്ല ഒരു അഞ്ച് ആൾക്കാർ ഉണ്ടാവും ആണോ ആ ആ അഞ്ച് ആ ആ അഞ്ച് പേർക്ക് അഞ്ച് റൂം വേണ്ട ഒര് രണ്ട് റൂം മതി ആ ഫ്രണ്ട്സ് ആണ് അപ്പോൾ രണ്ട് റൂം മതി പിന്നെ കുറഞ്ഞ ആ ആണോ അപ്പോൾ ആ ആ വയനാട് ആ ഓൾ വയനാട് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മഴയൊന്നുമില്ലാത്ത സമയത്ത് ഇപ്പം ക്ലൈമറ്റ് കുറച്ച് മോശം ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഴയൊക്കെ ഒനുമില്ലാത്ത സമയത്ത് വരാൻ വരാനാണ് ഉദ്ദേശം അപ്പോൾ അങ്ങനെ ഒരു പാക്കേജ് ആണ് വേണ്ടത്

പിന്നെ ഞങ്ങൾ വണ്ടി ഒന്നും കൊണ്ട് ഒന്നുമല്ല വരുന്നത് അപ്പോൾ അവിടെത്തന്നെ

അപ്പോൾ ആ

ആ ആ ട്രക്കിംഗ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ ട്രക്കിംഗ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ ആ ആ

ആ കുറുമ്പാലക്കോട്ട പോകുന്നുണ്ടോ കുറുമ്പാലക്കോട്ടയൊക്കെ ഉണ്ടോ പാക്കേജിൽ ഉണ്ടോ

ആ ആ എന്നാൽ പിന്നെ ഞാൻ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം അല്ലേ അപ്പം അങ്ങനെ ആണെങ്കിൽ ആ അങ്ങനെ അറിയിക്കുവോ നിങ്ങൾ ഒന്ന് അറിയിക്കുവോ ആ ആ ഓക്കെ